ട്രെയിനിനെക്കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ ട്രെയിനാണ് ഏറ്റവും നല്ലത് അതായത് യാത്ര ചെയ്യാൻ ഏറ്റവും സുഖം ബസ്സിനേക്കാൾ ബസ്സിനെ അപേക്ഷിച്ചു നോക്കുമ്പം യാത്ര ചെയ്യാൻ സുഖം ട്രെയിനിലാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിപ്പിടങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വിശാലമാണ് കുറച്ച് അതായത് ഒരു സീ അതായത് ഒരു സീറ്റില് നമുക്ക് നാലുപേർക്ക് ഇരിക്കാനുള്ള രീതിയിലുണ്ടാവും അപ്പുറത്തും ഇപ്പുറത്തും പിന്നെ മേലെ ബർത്തുകൾ ഉണ്ടാകും നമുക്ക് എത്ര ലഗേജുകൾ വേണമെങ്കിലും അതിന്റെ മുകളിലി കയറ്റി കൊണ്ടുപോകാം പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എൻജിനുകളൊക്കെ നല്ലതാണ് ഇതിൻ്റെ ശബ്ദം ചക്രങ്ങളൊരുപാട് ചക്രങ്ങളുണ്ട് ഉണ്ട് പിന്നെ ട്രെയിന് ട്രാക്കുകൾ ഒരുപാടുണ്ട് ശബ്ദം നമുക്ക് ഭയങ്കരെ അരോചകമായിട്ട് തോന്നും ഇങ്ങനെ അതായത് ആ എടുക്കുമ്പോഴുള്ള സൗണ്ടും പിന്നെ ഫുള്ള് അത് നമുക്ക് പിന്നെ നമ്മുടെ അടുത്തുകൂടെ പോകുമ്പോൾ അങ്ങ് എത്തുന്നത് വരെയും നമുക്കാ സൗണ്ട് ഭയങ്കര അതായത് ചെവിയിൽ ഇങ്ങനെ വല്ലാണ്ട് കേൾക്കും ശബ്ദത്തെക്കുറിച്ച് പറയുവാണ് അങ്ങനെയാണെങ്കില് ആണ് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിപ്പിടങ്ങളുടെ മുകളിലുള്ള ബർത്തുകളില് നമുക്ക് വേണമെങ്കിൽ കിടക്കാം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞാന് ട്രെയിനില് യാത്രചെയ്തത് എവിടെയാണെന്ന് വച്ചിട്ടുണ്ടെങ്കില് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്കാണ് അതായത് ഗുരുവായൂർ അമ്പലത്തില് പോകാൻ വേണ്ടി ചോറൂണ് ഉണ്ടായിരുന്നു അപ്പം ചോറൂണിന് കുട്ടിയെ കൊണ്ട് പോകാൻ വേണ്ടി പോയതാണ്